വിദ്യകൾ പഠിക്കാൻ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം ആ വിദ്യ നമുക്ക് താൽപര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ അതിന് താൽപര്യം പ്രകടിപ്പിക്കുക അത് നമ്മൾ മനസ്സിലാക്കണം ആ വിദ്യ പഠിച്ചാൽ അതു കൊണ്ട് എന്താണ് നമുക്ക് ഗുണമുള്ളത് എന്താണ് അത് പഠിച്ചതു കൊണ്ട് നമുക്ക് ഭാവിയിൽ ഗുണമുണ്ടാകുക ഭാവിയിൽ ഉപകാരമുണ്ടാകുക അത് പഠിച്ചാൽ എന്ത് ജോബുണ്ട് ആ ജോബിന് ഇപ്പോൾ ഭാവിയിൽ അല്ല ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ എത്രത്തോളം സ്കോപ്പുണ്ട് എത്രത്തോളം ജോലി സാധ്യതയുണ്ട് എന്നു നാം ആദ്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കണം അങ്ങനെ ആ വിദ്യയിൽ നമ്മൾ അങ്ങനെ നല്ല ജോലി സാധ്യതയൊക്കെയുള്ള വരുമാന മാർഗ്ഗമാക്കാൻ പറ്റുന്ന വിദ്യകൾ നമ്മൾ പഠിച്ച് മന ഉഷാറാക്കുക പരിപോഷിപ്പിക്കുക അതുപോലെ തന്നെ അവ

നല്ല എക്സ്പേർട്ടുള്ള നല്ല അറിയുന്ന അതിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ആൾക്കാരിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുക മനസ്സിലാക്കി എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ നാം പഠിക്കുന്ന വിദ്യ പോലും ഒരു വിഡ്ഢിത്തമായേക്കാം അതു പോലെ തന്നെ പുതിയ വിദ്യകളിൽ നാം പഠിക്കുമ്പോൾ നാം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന സംഭവമാണ് ഓൺലൈനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂട്യൂബ് യൂട്യൂബ് നമുക്ക് എന്തൊരു ആവശ്യം സർച്ച് ചെയ്തു നോക്കിയാലും ഏത് ലാംഗ്വേജിലാണെങ്കിലും നമുക്ക് ഇന്ന് ഈ ആധുനിക യുഗത്തിൽ നമുക്ക് ലഭ്യമാണ് അതിനാൽ യൂട്യൂബിൽ സർച്ച് ചെയ്തിട്ട് നമുക്ക് എന്തും കണ്ടു പിടിക്കാം നമുക്ക് ആവശ്യമുള്ള വിദ്യ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് നമ്മുടെ കഴിവിനെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ആ വിദ്യാ പഠിച്ചാൽ നമുക്ക് ഭാവിയിൽ ഉപകാരമുള്ളതാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ അതിനെക്കുറിച്ച് യൂട്യൂബിലും അതു പോലെ തന്നെ ഫേസ്ബുക്കുമാണെങ്കിൽ ഫേസ്ബുക്കിലും നമുക്ക് സർച്ച് ചെയ്താൽ കിട്ടും അതുപോലെ തന്നെ ഗൂഗിൾ സർച്ച് എഞ്ചിനിലും നമുക്ക് സർച്ച് ചെയ്താൽ കിട്ടാവുന്നതേയുള്ളൂ അങ്ങനെ സർച്ച് ചെയ്ത് അതിനെക്കുറിച്ചുള്ള വിശദമായി പഠിച്ച് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എ ഐ ഉപകരണങ്ങളുണ്ട് ആ ഉപര ഉപകരണങ്ങളെ നമുക്ക് ചോദിച്ചാൽ നമുക്ക് വളരെ തുച്ഛ വില കുറച്ച് സമയം സമയത്തിനുള്ളിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു മൊത്തത്തിൽ ധാരണ ഉണ്ടാക്കി എടുക്കാനും അതു പോലെ തന്നെ ഡീപ്പായി മനസ്സിലാക്കാനും നമുക്ക് ഒരു വളരെ വളരെ ഒരു സൗകര്യമുള്ള ഒരു സംഭവമാണ് ഇപ്പോഴുള്ള എ ഐ ഉപകരണങ്ങളായ ചേറ്റ് ജി പി ടി അതു പോലെ തന്നെ ഡീപ് സീക്ക് പോലെയുള്ള ഉപകരണങ്ങളൊക്കെ നമുക്ക് ഒരു വളരെ ന് പഠിക്കാൻ വിദ്യ പുതിയ വിദ്യകൾ പഠിക്കാനുള്ള ഒരു സഹായകമാണ്